ശരിക്കും പറഞ്ഞാല് റൈറ്റിംഗ് എൻ്റെ ഒരു ഹോബിയാണ് ഞാന് മിക്ക സമയത്തും എഴുതാനാണ് ശ്രമിക്കുന്നത് എനിക്ക് എഴുതാന് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ചെറുകഥയാണേലും ഏതൊരു കാര്യം കണ്ടാലും എഴുതുന്നതിനോടെനിക്ക് ഭയങ്കര താല്പ്പര്യമാണ് എഴുതുക എന്ന് പറയുമ്പോൾ ഒത്തിരി നേരം ഒന്നും എഴുതാന് എനിക്ക് സമയം കിട്ടാറില്ല ഞാനൊരു പഠിക്കുന്ന സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എഴുതാനായിട്ട് അത്ര സമയം കിട്ടാറൊന്നുവില്ല പക്ഷെ ഞാന് മാക്സിമം ടൈം അതിന് കണ്ടെത്താറുണ്ട് കാരണം എന്ത് പ്രശ്നം വന്നാലും ഞാനൊരിച്ചിരെ നേരമെങ്കിലും എഴുതാന് വേണ്ടി മാറ്റി വയ്ക്കും അത് അതുകൊണ്ട് എന്റെ ഹോബി ആയതുകൊണ്ട് തന്നെ എനിക്കതില് കുറെ ഇത് ഇപ്പം എന്തെഴുതാനാണെങ്കിലും വന്നാലും എനിക്ക് എളുപ്പം എഴുതാനൊക്കെ പറ്റുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ഒരു നല്ല കാര്യവായിട്ടാണെനിക്ക് റൈറ്റിംഗ് തോന്നിയിട്ടുള്ളത് പിന്നെ മാക്സിമം ഞാന് എഴുതുന്നത് ചെറുകഥ ആയിരിക്കും പത്രം ഒക്കെ വായിച്ചിട്ടാണേലും അതിന് അകത്ത് നിന്ന് ചെറിയ ടോപിക്സ് ഒക്കെ എടുത്ത് ഞാനെഴുതാന് ശ്രമിക്കാറുണ്ട് ഒത്തിരി വലിയ സക്സസ്സ് ഒന്നും ആയില്ലെങ്കിലും നന്നായിട്ട് ഞാന് മാക്സിമം എഴുതാന് ശ്രമിക്കാറുണ്ട് പിന്നെ ആണേൽ തന്നെയും വേറെ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാന് കൂടുതലും സാഹിത്യത്തിലോട്ടങ്ങനെ പോയിട്ടൊന്നുമില്ല അങ്ങനെ എഴുതുന്നതിനോടെനിക്ക് താല്പ്പര്യം ഒന്നുവില്ല ഞാന് കൂടുതലും എഴുതാറുള്ളത് എന്താ ചെറുകഥകളാണ് പിന്നേ ഇതിൽ നിന്ന് ടോപ്പിക്ക് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ ഞാനെഴുതും അങ്ങനെ ഉള്ള പിന്നെ ഞാന് കൂടുതലും ഇത് എഴുതാൻ ആയിട്ട് സ്ഥലം കണ്ടെത്തുന്നത് പുറം ഏരിയ പുറത്തെ ഏരിയകളാണ് കാരണം റൂമിനകത്ത് ഇരിക്കുമ്പോൾ നമ്മൾ ഒര് ഇച്ചിരി ആ നാല് ചുമരിനുള്ളിലായി പോകത്തില്ലേ പക്ഷെ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പം നമുക്ക് വിശാലമായ പ്രകൃതിയിൽ പ്രകൃതിയുടെ രമണീയത ആസ്വദിച്ച് പ്രകൃതിയുടെ ആ സൗന്ദര്യം ആസ്വദിച്ച് നമുക്ക് എഴുതാൻ പറ്റും അപ്പം നമുക്ക് കൂടുതൽ ആശയങ്ങൾ പ്രകൃതിയിൽ നിന്ന് കിട്ടും അതുമാത്രവല്ല ഇപ്പം നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോഴാണെങ്കിലും ഞാനെഴുതാനിരിക്കുന്ന എന്റെ വീടിന്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഒര് തോട് ഒര് ആറ് എഴ്ത് ഒഴുകുന്ന സ്ഥലമാണ് അപ്പം എനിക്ക് അവിടന്ന് ഒരു വലിയ പാലമുണ്ട് പിന്നെ നല്ല ആറും അപ്പം അതിന്റ് ആ ആറിന്റെ തീരത്തിരുന്നെനിക്കെഴുതാനൊത്തിരി ഇഷ്ടവാണ് അവിടെ ഒര് റൂം തന്നെ ഉണ്ട് റൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെഡ് പോലെ ഇങ്ങനെ ഷെല്ട്ട്രായിട്ടിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന അവിടെ ആണെങ്കിൽ എനിക്കെഴുതാന് ഭയങ്കര ഇരുന്നെഴുതാനാണിഷ്ടം പിന്നെ അവിടെ നല്ല ഒര് നല്ല കുറെ മരങ്ങളുണ്ട് നല്ല നല്ല കാറ്റും നല്ല പുഴ ഒഴുകുന്ന സൗണ്ട് അതൊക്കെ എഴുതുമ്പം നമുക്ക് ഒത്തിരി നാച്ചുറാലിറ്റി ഫീൽ ചെയ്യും അതുകൊണ്ട് എനിക്ക് അങ്ങനെ എഴുതുന്നതിനോട് നല്ല ഇഷ്ടമാണ് അപ്പം എനിക്കെഴുതാനേറ്റവും ഇഷ്ടമാണ് അപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് ഞാന് കൂടുതലും എടുക്കാറുള്ളത് റൂമിനെക്കാട്ടിലും പിന്നെ സാഹചര്യം പോലെ ഞാന് ചിലപ്പം റൂമിലും ഇരുന്ന് എഴുതാറുണ്ട്